തീർച്ചയായും നമ്മുടെ രാജ്യത്തെ ഓരോ സ്കൂളുകളിലെയും അധ്യാപകർ വളരെ മികച്ചതും വിദ്യാസമ്പന്നരുമാണ് അവർക്ക് ഒരു പാഠ്യ പദ്ധതിയെക്കുറിച്ച് വലിയ രീതിയിൽ തന്നെ അറിവുകളും അതിനെക്കുറിച്ച് പഠിപ്പിക്കേണ്ട രീതിയും വളരെ ലളിതമായി അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനായി ഗെവൺമെൻറ് തന്നെ ക്ലാസ്സുകളും എടുത്ത് കൊടുക്കുന്നുണ്ട് പോരാത്തതിന് ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന വിഷയങ്ങൾ എന്തെല്ലാമെന്ന് വെച്ചാൽ കേരളത്തിലെ ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന വിഷയം മലയാളം ഇംഗ്ലീഷ് ഗണിതം സയൻസ് സാമൂഹ്യ ശാസ്ത്രം തുടങ്ങിയവ പ്രാധാന വിഷയങ്ങളായാണ് പഠിക്കുന്നത് അതിന് പുറമേ ഉള്ള വിഷയങ്ങൾ ഹിന്ദി സംസ്കൃതം കമ്പ്യൂട്ടർ ശാസ്ത്രം ശാരീരിക വിദ്യാഭ്യാസം തുടങ്ങിയ വിദ്യാഭ്യാസ പദ്ധതികളാണ് പാഠ്യപദ്ധതിയുടെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ വിദ്യാർത്ഥിയുടെ ഭൗതിക മാനസിക ശാരീരിക വളർച്ച ലക്ഷ്യമിട്ടുള്ളതായിരിക്കും അതിനാൽ കുട്ടികൾക്ക് കൂടുതൽ മികവ് പുലർത്താവുന്ന അവസരങ്ങൾ ഗെവൺമെൻറ് തന്നെ പുറപ്പെടുവിപ്പിച്ചിരിക്കുന്നു ഒരു വിദ്യാർത്ഥിയുടെ ഉയർച്ചയ്ക്കായി അധ്യാപകൻ്റെ പങ്ക് വളരെയധികം കൂടുതലാണ് വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുകയും അവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യുക ഒരു അദ്ധ്യാപകനാണ് ഓരോ കുട്ടികളുടെയും കലകൾ ആദ്യം തിരിച്ചറിയുക ഒരു അദ്ധ്യാപകനാണ് സ്വന്തം വീട്ടുകാരെ പോലെ തന്നെ പിതൃസ്ഥാനത്തും മാതാസ്ഥാനത്തും നിൽക്കുന്ന ഒരു വ്യക്തികൾ കൂടിയാണ് അദ്ധ്യാപകർ അവരാണ് കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ പങ്ക് മനസ്സിലാക്കി അവർ ഏത് കലയിലാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നതും മനസ്സിലാക്കി അവരെ പ്രചോദിപ്പിക്കുകയും ഉയരങ്ങളിലേക്ക് കൈ പിടിച്ച് നീക്കുകയും ചെയ്യുന്നത് പഠന വിഷയങ്ങൾക്ക് കുട്ടികൾക്ക് താല്പര്യമാകുന്ന അധ്യാപന രീതിയാണ് അധ്യാപകർ പുറത്തെടുക്കുന്നത് പോരാത്തതിന് ഈ സമൂഹത്തിൽ വളർന്നു വരുന്ന ഈ സമൂഹത്തിൽ ഡിജിറ്റൽ മീഡിയ വളരെ ഒരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് കുട്ടികൾക്ക് ലളിതമായ രീതിയിൽ കാര്യങ്ങളും എല്ലാം മനസ്സിലാകുവാനും എളുപ്പമായി ലളിതമായി പഠിക്കുവാനായി ഗെവൺമെൻറ് പല രീതിയിലുള്ള പാഠ്യ പദ്ധതികൾ പുറപ്പെടിവിക്കുന്നുണ്ട് കുട്ടികളുടെ പോരായ്മകൾ മനസ്സിലാക്കി അവരെ ഓരോ വിഷയത്തിലും പ്രചോദിപ്പിക്കുവാനായി അധ്യാപകർ സ്പെഷ്യൽ ക്ലാസ്സുകളും സ്പെഷ്യൽ ആയി ഉള്ള പാഠ്യ ലളിത നോട്ടുകളും കുട്ടികൾക്കായി കൊടുക്കാറുണ്ട് ഇതുവഴി അവരുടെ പഠനരീതികൾ വളരെ മെച്ചപ്പെടുത്താവുന്നതുമാണ് പാഠപുസ്തകത്തോടൊപ്പം കായികം സംഗീതം നാടകം എല്ലാം കുട്ടികളെ ക്ലബ്ബുകൾ മൂലം ഉയർത്തുവാൻ അധ്യാപകർ ശ്രമിക്കാറുണ്ട് ഇതുവഴി അവരുടെ കലകൾ കലകൾ മെച്ചപ്പെടുത്തുവാൻ അവരെ സഹായിക്കും അനവധി സ്കൂളുകളിൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ വഴി പഠനം കൂടുതൽ മനോഹരവും ആധുനികവുമായിട്ടുണ്ട് പഠനത്തിൻ്റെ ഭാഗമുള്ള ഭാഗമായുള്ള ഏകോപത പരീക്ഷകളും മൂല്യനിർണയ രീതികളും വിദ്യാർത്ഥികളുടെ മുന്നേറ്റത്തിന് സഹായകരമാണ് ഇതിനായി കുട്ടികളുടെ എബിലിറ്റികൾ മനസ്സിലാക്കുവാനായി ഇടക്കിടെ പരീക്ഷകളും മൂല്യനിർണയവും നടത്തുവാറുണ്ട് പാഠശാലയുടെ ചുറ്റുപാട് വളരെ ലളിതമായതിനാൽ കുട്ടികൾക്ക് എളുപ്പമായി പഠിക്കുവാൻ സഹായിക്കുന്നു ഉത്സാഹപൂർവ്വം സഹകരണപരവുമായി സ്കൂൾ പരിസ്ഥിതി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും താല്പര്യം വർദ്ധിക്കുന്നു